കാർഷികോൽപ്പന്നങ്ങള് മിക്കവാറും തന്നെ ഗ്രാമങ്ങളിലാണ് നമ്മളുൽപാദിപ്പിക്കുന്നത് അത് ഗ്രാമങ്ങളില് ഉൽപാദിപ്പിച്ച് അതിനെ കൃഷി ചെയ്ത് വളം ചെയ്ത് നമ്മളതിനെ ഉൽപന്നങ്ങളുണ്ടാക്ക് നഗരങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് ചിലപ്പോ വണ്ടി വാടക വണ്ടി കിട്ടാന് ബുദ്ധിമുട്ട് വിളിച്ചാൽ വണ്ടി വിളിച്ചാൽ വരാൻ നമ്മുടെ നാട്ടിലേക്ക് വരാൻ റോഡ് കൊള്ളില്ല അങ്ങനെ പല കാരണങ്ങളാല് നമുക്ക് ആ ഉൽപ്പന്നങ്ങള് നഗരങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് അപ്പം നമ്മള് ഈ കഷ്ടപ്പെട്ട് കൃഷി ചെയ്തതിന് പകുതി പോലും ഫലം നമുക്ക് പൈസ കിട്ടാറില്ല അതൊരു നഷ്ടം തന്നെയാണ് പിന്നെ പിന്നെ ഇങ്ങനെ പറയുകയാണെങ്കിൽ പറഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ കമ്പോളങ്ങളില് വന്ന് കൊണ്ട് വന്ന സംവിധാനമൊക്കെ ഉണ്ടായികൊണ്ടിരിക്കുന്നുണ്ട്